പണ്ടുതൊട്ടേ ഒരു എല്ലാ വീട്ടിലും പറയുന്നത് സ്ത്രീകൾ ഇന്ന ജോലിയേ ചെയ്യാൻ പാടുള്ളൂ പുരുഷന്മാർ ഇന്ന ജോലിയേ ചെയ്യാൻ പാടുള്ളൂ വീട്ടിലെ തുണി കഴുകുന്നത് പാത്രം കഴുകുന്നത് പാചകം ചെയ്യുന്നത് കുട്ടികളെ നോക്കുന്നതൊക്കെ സ്ത്രീകൾ ആണ് വീട്ടിലെ കടമകളൊക്കെ നിർവഹിക്കുന്നത് ജോലിക്ക് പോയി പൈസ ഉണ്ടാക്കുക എന്നത് മാത്രമാണ് പുരുഷൻറെ കടമയായിട്ടാണ് പണ്ട് കാലം തൊട്ടേ ഉള്ളത് ഇന്നും അങ്ങനെ ജീവിക്കുന്ന കുടുംബങ്ങൾ ഉണ്ട് പക്ഷേ ഇന്നത്തെ ന്യൂ ജനറേഷൻ ആളുകൾക്ക് ആളുകൾ എന്ന് പറയുന്നത് തുല്യമായിട്ട് ജോലി ചെയ്യുക എന്നുള്ളതാണ് ആണിനും പെണ്ണിനും അതായത് ആണിന് ചെയ്യാൻ പറ്റുന്നത് തന്നെ ആണ് ഈ തുണികഴുകുന്നതും പാത്രം കഴുകുന്നതും കുഞ്ഞുങ്ങളെ ഒരുക്കി വിടുന്നതും കുളിപ്പിക്കുന്നതും എല്ലാം അങ്ങനെയാണ് പക്ഷേ ഇന്നും അതൊന്നും ഫോളോ ചെയ്യാത്ത നാടുകളും നമ്മുടെ നമ്മുടെ വീടുകളിലും ഒക്കെയുണ്ട് അതായത് ഇപ്പോഴത്തെ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ വീട്ടിൽ അടങ്ങി ഇരിക്കാൻ താല്പര്യം ഇല്ലാത്തവർ ആണ് അവർക്ക് ജോലിക്ക് പോവാനും മറ്റ് കാര്യങ്ങൾ ചെയ്യാനും താല്പര്യം ഉള്ളവരാണ് അപ്പം അങ്ങനെ ചെയ്യുന്നതിലൂടെ പുരുഷമേധാ പുരുഷ ഡോമിനൻസ് എന്ന് പറയുന്ന ഒരു കാര്യം കുറിച്ച് ഉണ്ട് സ്ത്രീകളെ കൂടുതലും മുന്നോട്ട് കൊണ്ടുവരുവാൻ ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നത് ആണ്